നമുക്കിപ്പോൾ വീടോ കാറിൻ്റെ ഇതിനൊ സംരംഭത്തിനൊക്കെ കൃഷിക്കോ വിദ്യാഭ്യാസത്തിനോ അങ്ങനെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് നമ്മള് ലോൺ ഇതാക്കാറുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇടുത്തേക്കുന്നത് എന്താ പറയുക ഒരു വണ്ടി വാങ്ങാൻ വേണ്ടീട്ടാണ് ഒരു കാർ വാങ്ങാൻ വേണ്ടീട്ടാണ് ലോൺ എടുത്തേക്കുന്നത് നമ്മൾ ഒരു എന്താ പറയുക നമ്മടെ ഒരു സ്ഥലം ഈടുവെക്കേണ്ടിവരും അല്ലെങ്കിൽ ഗോൾഡ് അങ്ങനെ പണയം വക്കേണ്ടിവരും നമ്മൾ കാർഷിക വായ്പയാണ് എടുത്തേക്കുന്നത് കാർ വാങ്ങാൻ വേണ്ടിട്ട് കാർഷിക വായ്പയാണ് എടുത്തേക്കുന്നത് അപ്പോൾ മാസം മാസം അടവില്ല വർഷത്തിലൊരിക്കലാണ് അടവ് വരുന്നത് നമുക്ക് അവിടൊരു അക്കൗണ്ട് വേണം അപ്പോൾ നമ്മൾ അക്കൗണ്ട് എടുക്കാൻ വേണ്ടിട്ട് ഫോട്ടോയും ആധാറും മതി അങ്ങനെ അക്കൗണ്ടും ചെക്ക് ബുക്കൊക്കെ ഇണ്ടാവും അതെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോ സ്ഥലാണ് വെക്കുന്നതെങ്കില് ആധാരവും പിന്നാധാരവും മുന്നാധാരവും ഒക്കെ വേണം നമ്മൾ അല്ലാത്തപക്ഷാണെങ്കില് നമ്മൾ ഗോൾഡ് വെച്ചിട്ട് ഇത്ര ശതമാനം പലിശക്ക് നമുക്ക് പൈസ തരുന്നതാണ് അപ്പോ അതിനാദ്യം അപേക്ഷ കൊടുക്കാണ് ചെയ്യേണ്ടത് അത് കഴിഞ്ഞട്ട് നമ്മൾ അക്കൗണ്ട് എടുത്തതിന് ശേഷം എന്താ ഈടുവെക്കാനുള്ളത് കൊണ്ട് കൊടുക്കുവാണ് അങ്ങനെ കുറച്ച് സൈൻസും അങ്ങ് കുറച്ച് പ്രൊസസ്സും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാ നമുക്ക് ലോണ് കിട്ടുന്നതാണ്